പ്രദേശത്തെ ബോഡോ ബംഗാളി തുടങ്ങിയ മറ്റ് ഭാഷകളുമായിട്ട് മലയാള ഭാഷയ്ക്ക് യാതൊരു വിധത്തിലുമുള്ള ബന്ധവും ഇല്ല കാരണം എന്തെന്ന് വെച്ചാൽ മലയാള ഭാഷ എന്ന് പറയുന്നത് ഒരു ദ്രാവിഡഭാഷയാണ് കാരണം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് ദ്രാവിഡ ഭാഷ ഉള്ളത് എന്നാൽ ബംഗാളി ബോഡോ തുടങ്ങിയവ ഉത്തരേന്ത്യയിൽ കാണപ്പെടുന്ന ഭാഷയാണ് ദ്രാവിഡ ഭാഷയിൽ നിന്നാണ് മലയാളം ഉൾകൊണ്ടിരിക്കുന്നത് എന്ന് കരുതപ്പെടുന്നു അതുപോലെ തന്നെ ദ്രാവിഡ ഭാഷയിലെ പ്രധാന ഭാഷയാണ് തമിഴ് തമിഴിൽ നിന്നുമാണ് മലയാളം ഭാഷ വന്നിരിക്കുന്നത് എന്ന് കരുതപ്പെടുന്നു അതുപോലെ തന്നെ ദ്രാവിഡ ഭാഷകളിൽ തന്നെ ഏറ്റവും പ്രയാസമേറിയ ഒരു ഭാഷയാണ് മലയാള ഭാഷ പഠിക്കാൻ പഠിക്കാനും എഴുതാനും വായിക്കാനും എല്ലാത്തിനും വളരെ പ്രയാസമേറിയ ഒരു ഭാഷയാണ് മലയാള ഭാഷ അതുകൊണ്ടു തന്നെ ഈ മലയാളഭാഷ അറിയുന്നവർക്ക് മറ്റു ഭാഷകൾ പഠിച്ചെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും